ഹലോ ഹലോ അതേലോ എവിടെന്നാണ് വിളിക്കുന്നത് ആ പേരെന്താണ് ചേട്ടൻ്റെ ആ എന്തിയെ എന്തിയെ വിളിച്ചത് ആ ആരാണ് ചേട്ടൻ ചേട്ടന് വേണ്ടിയോ ചേട്ടന് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ ആ ആ ആ പ്രാക്ട്റ്റീസിന് വേണ്ടി അല്ലേ ആ ആ ആ അപ്പം ഏതിനാണ് ഫോർ വീലാണോ ടു വീലാണോ കാറിൻ്റെ ഫോർ വീല് ആ ലൈസൻസൊണ്ട് ആ എത്ര നാളായിട്ട് എടുത്തതാണ് ആ ആ ആ പതിമൂന്ന് ആ ആ ആ ആ ആ ആ ആ അത്കൊണ്ട് ആ ആ ആ ആ ആ എന്താണ് ആ ആ അപ്പം അപ്പം സാറിന് അപ്പം സാറിന് പത്ത് അറുപത് വയസ്സുണ്ടോ ആ അറുപത് വയസ്സ് കഴിഞ്ഞോ അപ്പം ഇച്ചിരിയും മെമ്മറി ഒക്കെ ഇത് കുറവായിരിക്കും അല്ലേ മെമ്മറി പവറ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും ഫുള്ളാ അല്ല അല്ല കുട്ടികൾ അല്ല കുട്ടികൾ പഠിക്കുന്നത് പോലെ കുട്ടികൾ പഠിക്കുന്നത് പോലെ പെട്ടെന്ന് ആ ആ ആ അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു ആ ഓക്കെ ഓക്കെ ഓട്ടോമാറ്റിക്കാണ് പിന്നെ പിന്നെ നല്ലത് പക്ഷേ ഗിയറുള്ളതിൽ പഠിക്കുന്നത് വെച്ചാൽ മറ്റേ എല്ലാം ഓടിക്കാൻ പറ്റും അപ്പം ഗിയറുള്ള പഠിക്കുന്നത് ആയിരിക്കും ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ആ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞിട്ട് ആക്സിലേറ്ററിലേക്ക് മാറുമ്പോഴ്ത്തേക്കും ആക്സിലറ് ആ ആ ആ അത് ഓട്ടോമാറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് അല്ല ക്ലാസ്സെടുക്കാം അതിന് കുഴപ്പമൊന്നും ഇല്ല ആ അത് നമ്മുടെ കൈവശം ഇല്ല അതുകൊണ്ട് സാർ അടുത്തൊരു സുഹൃത്തിൻ്റെ ഡ്രൈവിങ് സ്കൂളിലൊണ്ട് അവിടുന്ന് നമുക്ക് സങ്കടിപ്പിക്കാം ഓക്കെ ആ ആ ഫീസ് ഒരു ഒരു അതിനൊരു എട്ട് മണിക്കൂറെങ്കിലും പഠിക്കേണ്ടി വരില്ലേ ആ ഞാൻ സാധാരണ പരമാവധി അല്ല ഇപ്പം പരമാവധി എട്ട് മണിക്കൂറ് കൊണ്ടൊക്കെ സാധാരണ എല്ലാവരും ഒരു അഞ്ച് മണിക്കൂറ് കൊണ്ടൊക്കെ അത് നല്ല പ്രാക്ടീസാവും സാധാരണ പിന്നെ ചുരുക്കം ചുരുക്കം ചുരുക്കം ചിലർക്ക് കൂടുതൽ വേണ്ടി വരുള്ളു ഒരു മണിക്കൂറിന് ആയിരം രൂപ വെച്ച് മണിക്കൂറിന് ആയിരം രൂപ വെച്ചാണ് ഈടാക്കുന്നത് ഈടാക്കി കൊണ്ടിരിക്കുന്ന ആ ഞാൻ സാധാരണ ഒരു അഞ്ച് മണിക്കൂറ് കൊണ്ടൊക്കെ എല്ലാവരും ആകാറുണ്ട് ആ മതി മതി മതി അതാണ് സാർ അല്ല ഡ്രൈവിങ്ങിപ്പം നമ്മൾ ഡ്രൈവിങ്ങ് സ്കൂളിൽ പഠിച്ചതല്ലേ ഡ്രൈവിങ്

നമുക്ക് റോഡിൽ തരാം അത് തിരക്കില്ലാത്ത റോട്ടിൽ കൂടെ നമുക്ക് ഓട്ടിക്കാം അതല്ലേ പേടിയില്ലാതെ ഓടിക്കാൻ പറ്റുന്നത് ഗ്രൗണ്ടിലേക്കായാലും ആ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളു അതാ നല്ലതും ഗ്രൗണ്ടിൽ പഠിക്കുമ്പോൾ വേറെ വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനൊരു ധൈര്യത്തിന് ഓടിക്കാൻ പറ്റും അതിനെക്കാളും ഒക്കെ ഇപ്പം റോട്ടിൽ കൂടെ ഓടിക്കുവാണേൽ ഇപ്പം കയറ്റവും ഇറക്കവും വളവും വളവും ഒക്കെ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും ആ പോരെ പോരെ ആ ഓക്കെ താങ്ക് യൂ